ഹലോ ഹലോ കട്ടപ്പന അന്നാ ബേക്കറി അല്ലേ ഞാൻ കട്ടപ്പനയ്ക്ക് പള്ളിക്കടുത്തുള്ളൊരു വീട്ടില് നിന്നു വിളിക്കുന്നതാണ് എനിക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് പറ്റുമോ വൺ കിലോയുടെ മതി വൺ കെ ജി മതി ബ്ലാക്ക് മതി ബ്ലാക്ക് മതി സ്ട്രോബെറിയുടെ

ഹാപ്പി ബർത്ഡേ എഴുതിയാല് മതി പിന്നെ കുറച്ച് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെയ്ക്കാമോ പിന്നെ കേക്ക് മാത്രം അല്ലാതെ വേറെ സ്പെഷ്യലായിട്ട് അവിടെ എന്താണുള്ളത് ഉണ്ടോ ആ അപ്പം ആ മട്ടൻ ബിരിയാണി ഓ മട്ടൻ ബിരിയാണിയുണ്ടാകുമല്ലോ അമ്പത് പേർക്ക് കഴിക്കാവുന്ന രീതിക്ക് മട്ടൻ ബിരിയാണി റെഡിയാക്കാന് പറ്റുമോ ഇന്ന് വൈകുന്നേരത്തേക്ക് ടൈം ഒരു ആറ് മണി

ജൂസ്സായിട്ട് ഏതൊക്കെ ഐറ്റംസാണ് അവിടെയുള്ളത് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനായിട്ട് ആ അത് അതുമതി അതുമതി പൈനാപ്പിള് മതി അതൊരൂ അമ്പത് അമ്പത് ഗ്ലാസില് കൂടുതലുള്ള അളവിലെടുത്തോളൂ ആ എക്സ്ട്രാ കരുതിക്കോളൂ ആവശ്യത്തില് കൂടുതല് വേണ്ടിവന്നാല് എടുക്കാമല്ലോ ആ പിന്നെ ചായ അങ്ങനെയെന്തെങ്കിലും കോഫി അങ്ങനെയെന്തെങ്കിലും വാനിലയുടെ വാനിലയുടേതുണ്ടോ ആ അതുമതി അതും ഇതുപോലെ തന്നെ അമ്പത് അമ്പതില് കൂടുതല് ആളുകൾക്ക് യൂസ് ചെയ്യാന് പാകത്തിന് തന്നെ കുറച്ച് കൂടുതലെടുക്കാമോ കുറച്ച് മിട്ടായി കൊണ്ടുവരണം ഡയറി മിൽക്ക് വേണോ പത്തിൻ്റെ മതി ഒരു ആ അമ്പത് മതി അമ്പതില് കൂടുതൽ കരുതാമെങ്കിൽ അങ്ങനെയായാലും പ്രശ്നമില്ല

ഓക്കേ ആ ഇങ്ങോട്ടു കൊണ്ടുവരാന് പറ്റുമെങ്കില് അതായിരിക്കും സൗകര്യം കൊണ്ടുവരുന്നതില് ബുദ്ധിമുട്ടില്ലല്ലോ വേറെ അത്യാവശ്യമായിട്ട് ഇപ്പോഴൊന്നുമില്ല കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലും അപ്പം ആ ഹൽവയും ജിലേബിയുമുണ്ടോ ആ ഹൽവ എന്തോ ആ ലഡുവും കരുതിക്കോളൂ ആ അതും ഇതുപോലെ അമ്പത് പേർക്ക് കഴിക്കാവുന്ന രീതിക്ക് ഓരോന്നും കൊണ്ടുവരണം ലഡു ജിലേബി ഹൽവ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ബലൂൺസ് കുറച്ച് വേണം പല കളറിലുള്ള പാക്കറ്റായി ആ ഓക്കെ പാക്കറ്റ് എത്രയാകും ഞാനാദ്യം പറഞ്ഞ കേക്കിനെത്ര വിലയാകുമെന്ന് പറയുമോ ആയിരത്തിയഞ്ഞൂറ് വൺ കിലോയുടെ ആ മൊത്തം ടോട്ടൽ ഏകദേശം ഒരു എമൗണ്ട് പറയാന് പറ്റുമോ എത്രയാണ് ആയിട്ടുണ്ട് ഓക്കേ ആ അപ്പോള് ഇത് ആ ഓക്കെ താങ്ക് യൂ അപ്പോള് ഇതൊരു ആറുമണി ഈവെനിംഗ് കൊണ്ടുവരാൻ പറ്റുമല്ലോ

ഓക്കെ ഓക്കേ താങ്ക് യൂ